ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആഡോണായിട്ട് ഒരു കുറച്ചു ടോപ്പിങ്ങ്സും പിന്നെ എക്സ്ട്രാ മയോണൈസും പിന്നെ ഒരു എക്സ്ട്രാ സോസും പിന്നെ രണ്ട് മൂന്ന് സ്ലൈസ് ചീസും ആഡ് ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങടെ ആഡ് ഓൺസ് ആയിട്ടു കൊടുക്കുന്നത്